ഒമ്പത് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ട് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ്റി എട്ട് എട്ട് ഒൻപത് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്ന് നാല് ആയിരത്തിത്തൊള്ളായിരത്തിത്തൊണ്ണൂറ്റി എട്ട്